ഹലോ കാർ മെക്കാനിക്കല്ലേ എൻ്റെ കാറ് ചെറിയ കംപ്ലൈന്റുണ്ടായിരുന്നു കാറിൻ്റെ അടിയിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് പിന്നെ ബ്രേക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് മിസ്സ് ആവുന്നുണ്ട് പിന്നെ എൻജിൻ ഓയില് പോവുന്നുണ്ട് ആ കാറ് ആൾട്ടോ ആ രണ്ടായിരത്തി പത്തൊമ്പത് ആ സർവീസെല്ലാം കറക്റ്റാ ചെയ്തത് ആ അതെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട് വണ്ടിയിൽ നിന്ന് ഉള്ളിൽനിന്ന് ആ അത് കൃത്യമായിട്ട് ചോദിച്ചാൽ എനിക്കറിയില്ല ആ ഫ്രണ്ടിൽ നിന്നും കേൾക്കുന്നുണ്ട് ഈ ഇരിക്കുമ്പോഴൊക്കെ ചെറിയ ചെറിയ സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട് ഇരിക്കുമ്പോഴേ വണ്ടിയിൽ ഓവറ് വെയ്റ്റൊക്കെ ആവുമ്പോൾ ആ ഷോറൂം എവിടെയായിട്ടാണ് വരുന്നത് ആ ഓക്കെ ആ വന്നാൽ ഉപകാരം ആയിരുന്നു വണ്ടികൊണ്ട് അങ്ങോട്ടേക്ക് വരണത് കുറച്ച് റിസ്ക്കാണ് ആ ബ്രെയ്ക്കിനൊക്കെ പ്രശ്നമുണ്ട് ആ ചെക്ക് ചെയ്യാം പക്ഷെ ഇപ്പം കാറിവിടെ ഇല്ല കാറ് ഒരു സ്ഥലം ഒരാൾ കൊണ്ടു പോയിട്ടാണ് ഉള്ളത് അപ്പോൾ അയാളാണിങ്ങനെ വിളിച്ച് പറഞ്ഞത് അല്ല അയാളാണ് ഇപ്പോൾ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടെന്ന് അപ്പോൾ പിന്നെ അയാളുടെ വീട്ടിൽ നിർത്തി വച്ചിരിക്കുകയാണ് ആ ഓക്കെ

ആ വേറെ മറ്റേ ടൂ വീലറിൻ്റെ വല്ലതും വരുന്നുണ്ടോ

ആ ആ ഓക്കെ ഓക്കെ ടൂ വീലറിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു പിന്നെ പഞ്ചറുണ്ട് അപ്പോൾ അതൊക്കെ ഒട്ടിക്കാൻ കൊണ്ടുവരാം ആ ഓക്കെ നോട്ട് ചെയ്യുമോ ആ ആ അമൃത കാഞ്ഞിരത്തിങ്ങൽ ഹൗസ് പനവല്ലി പനവല്ലി എടപ്പള്ളിയിൽ നിന്ന് അടുത്തായിട്ട് വരും ആ ആ ലൊക്കേഷൻ ഇട്ടുതരാം അന്നേരം വാട്സ്പ്പിൽ ആ ഈ നമ്പറിൽത്തന്നെയാണ് ആ ഓക്കെ ഓക്കെ